ഗ്രാമത്തില് ഗ്രാമത്തിൽ താമസിക്കുന്ന ആൾക്കാർക്ക് വൈദ്യുതി പല രീതിയില് ഉപയോഗിക്കാവുന്നതാണ് ഗ്രാമത്തിലെ നോക്കുകയാണെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റും മറ്റും കാര്യങ്ങൾക്ക് വൈദ്യുതി ആവശ്യമാണ് പിന്നെ ഗ്രാമത്തിൽ താമസിക്കുന്നവർക്ക് ഇപ്പോൾ എല്ലാ ആവശ്യങ്ങൾക്കും വൈദ്യുതി നിർബന്ധമാണ് ഇപ്പോൾ നമുക്ക് വീട്ടിലെ ഓരോ കാര്യങ്ങൾക്കും ഫാൻ ലൈറ്റ് ടിവി അതുപോലെ തന്നെ ഫോൺ ചാർജ് ചെയ്യാൻ ഫ്രിഡ്ജ് വർക്ക് ചെയ്യാൻ അങ്ങനെ മിക്സി ഗ്രൈൻഡർ അങ്ങനെ എല്ലാ ആവശ്യങ്ങൾക്കും വൈദ്യുതി ആവശ്യമാണ് അപ്പോൾ നമ്മള് കൃഷിയിൽ വൈദ്യുതി ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങളെന്ന് പറയുമ്പോൾ കൃഷിയിൽ നമുക്ക് ജലസേചനത്തിനായി നമുക്ക് വെള്ളം നമുക്ക് കിട്ടാൻ വെള്ളം നമ്മള് അടിക്കാനായിട്ട് നമുക്ക് മോട്ടോറടിക്കാനായിട്ട് നമുക്ക് വൈദ്യുതി ആവശ്യമാണ് അതുപോലെ തന്നെ ഈ ഇടയായിട്ട് നമ്മള് ഈ ഒരു ഈ ഒരു കാലഘട്ടത്തിൽ കൂടുതലായിട്ടും വെദ്യുതി കമ്പികള് ഉപയോഗിച്ചു നമുക്ക് മറ്റും മൃഗങ്ങൾ കൃഷി നശിപ്പിക്കുന്ന മൃഗങ്ങളെ അല്ലെങ്കിൽ അവയെ പിടിക്കാനായിട്ട് വൈദ്യുതി കമ്പികള് ഇപ്പോൾ പാടശേഖരങ്ങളൊക്കെ സ്ഥാപിക്കുന്നുണ്ട് അങ്ങനെയും വൈദ്യുതി ആവശ്യമായിട്ട് വരുന്നുണ്ട്